ആ ഞാൻ മൊബൈൽ കാണുന്നത് ഏഷ്യാനെറ്റും അതുപോലെയുള്ള ചാനലുകളാണ് കാണുന്നത് പക്ഷെ അത് വായിക്കാറുണ്ട് പക്ഷെ എന്നിരുന്നാലും വരിക്കാരൻ ഏഷാനെറ്റിൻ്റെ അങ്ങനെയക്കെയുള്ള പല ചാനലുകൾ കാണാറുണ്ട് അത് അവരുടെ വാർത്തകൾ കുറച്ചു കൂടെ നമുക്ക് സ്പീഡപ്പ് ആയിട്ട് തോന്നുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വളരെ ലളിതമായ രീതിയിൽ പറയുന്നു എന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണാനുള്ള ഒരു താല്പര്യം തോന്നുന്നു പിന്നെ മനോരമ ചാനലുകൾ കാണും മനോരമ ചാനലിലും ഈ പറഞ്ഞത് പോലെയാണ് കുറേ കൂടെ ലളിതമായ ഭഷയിൽ കാര്യങ്ങൾ പറയുന്നു അത് കേൾക്കാൻ സാധിക്കുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാകുന്നത് മതൃഭൂമി ചാനല് അങ്ങനെ കാണാറില്ല ചിലത് സമയവും നമുക്ക് അത് സാധിക്കുന്നില്ല എല്ലാം കാണുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള സമയം നമുക്ക് കിട്ടുകയില്ല രാവിലെ ഓരോ തിരക്കുകളിലൊക്കെ പെട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ മാത്രം ന്യൂസുകൾ വാർത്തകൾ ശ്രദ്ധിക്കുക അതാണ് രീതികൾ പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളടേതായ രീതിയിലാണല്ലോ അവർ ചാനലുകാർ സംസാരിക്കുക അവരുടേതായ ചാനലുകൾ ചില സ്ഥലത്ത് സംസാരങ്ങളിലൊക്കെ നമുക്ക് തോന്നാറുണ്ട് രാഷ്ട്രീയപരമായിട്ടും അല്ലേ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുമൊക്കെയുള്ള സംസാര ശൈലികളും പ്രവർത്തന രീതികളും ഒക്കെ തോന്നാറുണ്ട് പിന്നെ ഏതെങ്കിലുമൊരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ പക്ഷം പിടിച്ചുള്ള സംസാരങ്ങൾ പ്രതേകിച്ചു ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്രൈസ്തവരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ഉയർത്തി കട്ടുന്ന ഒരു പ്രവണതകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഓരോരോ പ്രശ്നങ്ങൾ സഭയിലെ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വീണ്ടും വീണ്ടും കാണിക്കുകയും അത് വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഈ പറയുന്ന ചാനലുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനൊക്കെ സാധിക്കും

അപ്പം ചാനലുകൾ അവർ അവരുടെ ജോലികൾ ചെയ്യുന്നു എന്നുള്ള ഒരു കൺസേൺ മാത്രമേ എന്നെ സംബന്ധിച്ചു എനിക്ക് തോന്നാറുള്ളൂ കാരണം അവർ ഒരു ജോലി ഒരു പ്രൊഫഷൻ രീതിയിൽ അവരുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നു ആ പ്രസ്ഥാനത്തിൽ അവർ പറയാനുള്ള കാര്യങ്ങൾ അവർ പറയുന്നു നമ്മൾ കോമണായിട്ട് ശ്രദ്ധിച്ചു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലതെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അവർ അവരവരുടെ കാര്യങ്ങൾ പറയുന്നു അല്ലാതെ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പുലർത്താനുള്ള ഒരു മോറൽ രീതികളിലൊന്നും ഒരു ഒന്നും അങ്ങനെ വരുന്നില്ല പിന്നെ സഭയുടെ ഒരു ടിവിയുണ്ട് അതും ഇടയ്ക്ക് കാണും എല്ലാം അങ്ങനെയൊക്കെയുള്ള പിന്നെ ചില ചില പ്രോഗ്രസീവായിട്ടുള്ള ചില വാർത്തകളൊക്കെ വരും ഒരു ചില ചാരിറ്റി സംബന്ധമായുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ വരാറുണ്ട് ഓക്കെ